ഇത് പോലെ ഗ്രാമങ്ങളിലോരോരോ മത്സരങ്ങളുണ്ടാവുന്നു അതിൽ നിന്നും ഊർജം കൊണ്ട് ആൾ ആളുകളും അതിലെക്കെ ചില സമയം ചില സമയങ്ങളിൽ അവരുമായി ഉൾപ്പെടുന്നു അതിൽ അതിൽ നിന്നും സന്തോഷം കൈവരിക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്ക് കളി യ്ക്കാനൊരു സൗകര്യങ്ങളാവുകയാണ് അതിൽ നിന്നുള്ള അതുപോലെ പിന്നുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കുട്ടികൾ കളിക്കുന്നതിലൂടെ അവർക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ഡിപ്രഷൻ അങ്ങനുള്ള സംഭവങ്ങളൊക്കെ കുറയും കുറയുകേം വീട്ടുകാരോടൊത്ത് നല്ല പോലെ സംസാരിക്കുകയും മറ്റ് കാര്യങ്ങൾ നോക്കുന്നു അതിലൂടെ വീട്ട്കാർക്കും സന്തോഷമുണ്ടാകുന്നു പിന്നെയീ നാട്ടുകാരുടെ ഇടപേടൽലൂടെ ഉണ്ടാകുന്ന ഓരോരോ ടൂർണമെൻറ്റ്കൾ ഒക്കെ കുട്ടികൾക്ക് പ്രചോദനമാകുന്നു കൂടുതലായിട്ട് കളിക്കാനും അതിനക്കെയായിട്ട് അപ്പോൾ ഓരോട് ഓരോ വർഷം ഈ നാട്ടുകാർക്കൂടി ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നതിലൂടെ കുട്ടികൾ കൂടുതലായിട്ടിതിലേക്ക് ആകർഷിതരാകുകയും അതിനേത്തുടർന്ന് ഒരു നല്ലൊരു യുവ യുവതലമുറയെ സൃഷ്ടിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ടൂർണമെൻറ്റ് കളിയിൽ നിന്നക്കെ അതിനോ അതിൽ നിന്ന് കളി കാണണം കാണാൻ കാണുന്നതിലൂടെ കുറെ ആൾക്കാർക്ക് സമയം പോകും പിന്നെ അതിലൂടെ കുറെ കളി കാണുമ്പോൾ അതിലൂടെ പണ്ടത്തെ ഓർമകളെല്ലാം പല തരത്തിലുള്ള പണ്ടത്തെ ഓർമ്മകൾ നമുക്കൊക്കെ ഓർമ്മ വരികേം അതിനെ തുടർന്ന് നമ്മൾ കൂടുതലുന്മേഷഭരിതരാവുകയും ചെയ്യുന്നു ഇതൊക്കെത്തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്